ഞങ്ങളുടെ പ്രദേശത്തെ പാരമ്പര്യ കളികൾ ഏതൊക്കെയെന്ന് വെച്ചാൽ ക്രിക്കറ്റ് കളി ക്രിക്കറ്റ് കളി അത് എങ്ങനെയാണ് കളിക്കുന്നതെന്ന് വെച്ചാൽ ഒരു സൈ ഒരു സെൻ ഒരു റൗണ്ട് വരക്കും സെൻറ്ററിൽ ഒരു ബൗണ്ടറി വരും ബൗണ്ടറി എന്ന് വെച്ചാൽ ഒരിത് വരും അവിടെ മൂന്ന് സ്റ്റമ്പും കുത്തി വെച്ച് ഒരു ബാറ്റ്സ് മാൻ അവിടെ നിൽക്കും അതിൻ്റെ തൊട്ടടുത്ത് ഒരു ബോളർ നിൽക്കും അവിടെ ഒറ്റ സ്റ്റമ്പും കുത്തി വെക്കും അങ്ങനെ ബാറ്റ് മാൻ പന്ത് എറി എറിയുകയാണ് ചെയ്യുന്നത് അത് പൊക്കി അടിച്ചാൽ സിക് പൊക്കി അടിച്ച് ബൗണ്ടറിയുടെ അപ്പുറത്ത് കളഞ്ഞാൽ അത് സിക്സ് വരികയും അകത്തു അടിച്ച് ഉരുണ്ട് പോയി ബൗണ്ടറിയുടെ അപ്പുറത്തു പോയി കഴിഞ്ഞാൽ ഫോറും ആണ് വരുന്നത് അങ്ങനെ കളിച്ച് കളിച്ച് ഏറ്റവും കൂടുതല് ഇങ്ങനെ ആദ്യമേ തോൽക്കുന്നവര് ഇതാകും അവര് ഏറ്റവും കൂടുതല് എന്താ വിക്കറ്റ് എടുക്കുന്നവര് ജയിക്കുകയുമാണ് ചെയ്യുന്നത് പിന്നെ അതിന് ശേഷം അതിന് ശേഷം അതിന് ശേഷം പിന്നെ അതിന് ശേഷം കണ്ണുപൊത്തി കളിയാണ് വരുന്നത് ഒരാൾ വന്ന് ഒരാളുടെ കണ്ണുകൾ കെട്ടുകയും അയാൾ വന്ന് ബാക്കി ഉള്ളവരുടെ കണ്ണ് പൊത്തി വന്ന് പിടിക്കുകയുമാണ് ചെയ്യണ്ടത് അങ്ങനെയാണ് ഈ കണ്ണുപൊത്തിക്കളിയുടെ ഒരിത് എന്ന് വെച്ചാൽ പിന്നെ അതിന് ശേഷം നമ്മുടെ ഓടി പിടിത്തക്കളി കളിയാണ് ആ ഓടി പിടിത്തകളി എങ്ങനെ എന്ന് വെച്ചാൽ എന്തോ ഒരാള് സ ഒരാള് ഒരാളെ സ് സെലക്ട് ചെയ്യുകയും പിന്നെ അതിനു ശേഷം ഒരാൾ ആണെങ്കിൽ മറ്റ് ബാക്കിയുള്ളവരെ പിടിക്കുകയും ആ ആദ്യമേ പിടിക്കുന്ന ആൾക്കാര് പിന്നെ അടുത്ത എന്തോ റണ്ണർ ആകുകയും ആണ് ചെയ്യുന്നത് അതാണ് ചെയ്യുന്നത് അങ്ങനെയാണ് കളിക്കേണ്ടത് പിന്നെ അതിന് ശേഷം അടു അതിനുശേഷം ഉള്ള കളിയാണ് പിന്നെ കണ്ണ് കണ്ണ് പൊത്തിക്കളി കണ്ണു പൊത്തി കളിയെന്നു വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ പിന്നെ കണ്ണ് പൊത്തി ഇങ്ങനെ കളിക്കുന്നയാണ് കണ്ണ് പൊത്തികളി അല്ലെ ആണ് പിന്നെ അതിനു ശേഷം ഉള്ള കളിയാണ് കിളിത്തട്ട് കിളിത്തട്ട് കളി എന്ന് വെച്ചാൽ നാ എന്തുവാ ഒരു ച ഒരു ചതുരത്തിൽ ഉള്ള വലിയ ഒരു വര വരയ്ക്കും അതിന് ശേഷം അതിൻ്റെ അതിൻ്റെ നടുക്ക് കൂടെയും പുറത്തുകൂടെയും നാല് വരകൾ വരയ്ക്കും നാല് വരകൾ വരച്ചിട്ട് ഇപ്പുറത്തു കുറച്ച് ഭടന്മാരും അപ്പുറത്തു കുറച്ചു പടയാളികളും നിൽക്കും ഇപ്പുറത്ത് ആ ഈ ഭടന്മാര് ഈ പടയാളികളെ പീഡിപ്പിക്കുന്നതാണ് ഗെയിമ് ഗെയിമെന്ന് വെച്ച് എങ് എങ്ങനെന്ന് വെച്ചാൽ കളി എന്ന് വെച്ചാൽ നമ്മൾ ചാടി ചാടി പോയി ഭടന്മാരെ പിടിക്കണം ഭടന്മാര് ഇപ്പുറത്തോട്ട് ചാടി വന്ന് നമ്മുടെ ഭടന്മാരുടെ ഒരു കോളം കണക്ക് ഒരു ക്രോസ്സുണ്ട് അത് കടന്ന് കഴിഞ്ഞാൽ അത് ഔട്ടാണ് അത് പൊക്കുകയാണ് ചെയ്യുന്നത് അതിനു മുമ്പേ ഭടന്മാര് പിടിക്കു പിടിക്കുക് എല്ലാ പടയാളിയേയും പിടിക്കുവാണേൽ എന്തോ ഭടന്മാര് ജയിക്കും ഇല്ലേൽ പ എന്താ പടയാളികൾ പടയള് ഭട പടയാ പടയാളികൾ പടയാ പടയാളികൾ ഭടന്മാരെ പിടിക്കുന്നതിന് മുമ്പേ ഒരു ആ ക്രോസ്സ് ചാടുന്നതിനും ച ചാ ചാടുകയാണേൽ എന്തോ പടയാളികൾ തോ ഭടന്മാർ തോൽക്കുകയും ചെയ്യും